ആ ആ പറഞ്ഞോളൂ ഹലോ ആ ഞാനേ അവിടുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടീട്ടായിരുന്നു ആ ഓണം ഓണത്തിനു വേണ്ടീട്ട് അപ്പോൾ ആ ഫാമിലിക്ക് മൊത്തമായിട്ട് എടുക്കാൻ വേണ്ടീട്ട് അപ്പോൾ അവിടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടീട്ടായിരുന്നു ആണെന്നല്ലേ ഞാൻ കുറെ സ്ഥലത്തു കയറി അപ്പോൾ അവിടെയൊന്നും കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനവിടുന്നെല്ലാം ഇറങ്ങിവരുവാരുന്നു അപ്പം ഒന്നു വിളിച്ചു നോക്കീട്ട്

ആ അതാ ഒന്നു വിളിച്ചുനോക്കിയത് ഉണ്ടോന്നറിയാൻ വേണ്ടീട്ട് ചെയ്യാൻ പറ്റുമല്ലേ റേറ്റ് എങ്ങനൊക്കെയാണ് അറുന്നൂറ്റിതൊണ്ണൂറ്റൊൻപത് തൊട്ടാണ് ഇവിടെ ചെറിയകുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സും ഉണ്ടോ ആ ത്രീ ഡബിൾ നയൻ തൊട്ടല്ലേ നല്ല ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ളതല്ലേ ഇപ്പോൾ ഓഫർ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ ട്വന്റി പെർസെൻറ്റേജാ ആ ഓക്കേ ഓക്കേ ആ അപ്പം വേറെന്തെങ്കിലും ഓഫർ കാര്യങ്ങളുണ്ടോ നമ്മൾ ആ നിങ്ങളുടെ ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആണോ ഇന്ന് ഓപ്പൺ ആണോ അല്ലല്ലോ ആ ഓക്കേ ഓക്കേ നാളെ വന്നുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റുവോ എടുക്കാൻ പറ്റും അല്ലേ എവിടെയായിട്ടായിരുന്നു ഷോപ്പ് എവിടെയായിട്ടായിരുന്നു മൈസൂർ റോഡ് അല്ലേ അവിടെ ചെന്നിട്ട് വെറുതേ ആവില്ലല്ലോ കളക്ഷനൊക്കെ ഇല്ലേ ആ എന്തേലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കണംട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാരേം കൂട്ടീട്ട് വരാം അങ്ങോട്ടേക്ക് ഓക്കേ എന്നാൽ